സിനിമകളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിനോദങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളെങ്ങനെ ചിലവഴിക്കണതെന്നു വെച്ചാൽ സിനിമകൾ തന്നെയാണ് എനിക്കേറ്റവും കൂടുതലിഷ്ടപ്പെട്ട സിനിമകളെന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ജോണാറിങ്ങനെ വെച്ച് റൊമാൻസിഷ്ടമാണ് ത്രില്ലറിഷ്ടമാണ് അഡ്വഞ്ചറിഷ്ടമാണ് പിന്നെ ഇത്രയും പ്രധാനപ്പെട്ട നമ്മളിഷ്ടപ്പെടുന്ന സിനിമകൾ നമ്മളെ മെയിൻ ഫോക്കസിത്തരം സിനിമകളാണ് എന്നാൽ എന്നു കരുതി മറ്റുള്ള ഡ്രാമ കോമഡി മൂവീസൊന്നും നമ്മൾ കാണാതിരിക്കൊന്നുമല്ല ബെസ്റ്റ് ഫിലിംസ് നമ്മളെപ്പോഴും കാണും എനിക്കേറ്റവും കൂടുതൽ ഹോളി വുഡ് മൂവീസാണ് നമുക്ക് കാണാനിഷ്ടം കാരണം അതിൽ കിട്ടുന്നൊരു ഒറിജിനാലിറ്റി ഒന്നും തന്നെ ഇന്നും നമ്മുടെ ബോളി വുഡും കോളി വുഡും മോളി വുഡൊന്നും മുതലെടുത്തിട്ടില്ല ഇനി നമുക്ക് പ്ര എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവതാർ പറയാം കാരണം എൻറ്റൊരു ടേസ്റ്റിൽ വരുന്ന ഒരു മൂവിയാണ് ഈ ഫാൻറ്റസി അല്ലെങ്കിൽ അഡ്വഞ്ചറെന്നൊക്കെ പറയുന്ന ഒരു ടേസ്റ്റിൽ വരുന്നൊരു മൂവി നന്നെയാണ് അവതാർ അവതാർ നമുക്ക് എത്ര കണ്ടാലും എത്ര കണ്ടാലും മതിയാവാത്തൊരു തരത്തിൽ സിനിമ തന്നെയാണ് പിന്നെയെന്നു പറയാണെങ്കിൽ നമ്മൾ ഡികാപ്രിയോണിൻ്റെ റെവനൻറ്റ് അതും തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് കാരണം ഇത്രത്തോളം സിനിമയിലൊക്കെ ഇവർക്ക് അഭിനയിക്കാൻ കഴിയുന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഭയങ്കര വണ്ടറടിച്ച് പോയിട്ടുള്ള സിനിമകളാണ് കാരണം ഇന്നും ലോകത്ത് ഏറ്റവും വലിയ അഡ്വഞ്ചർ സിനിമകൾ ഏതാണെന് നമ്മൾ സർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും റവനൻറ്റിൻ്റെ പേർ നമ്മളതിൽ മുൻ നിരയിൽ കാണാൻ പറ്റുമെന്നു വെച്ചാൽ ആ ഒരു സിനിമേൻ്റെ മാഹാത്മ്യമെന്നു തന്നെയാണ് പിന്നതുപോലെ നമ്മൾ ഞാൻ എല്ലാ തോന്നലുകളെക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് റൊമാൻസ് തന്നെയാണ് നമുക്ക് സിനിമയിൽ നമുക്കിഷ്ടപ്പെടുന്ന മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു റൊമാൻസ് മൂവിയെന്നു പറയാണെങ്കിൽ അന്നയും റസൂലുമാണ് ഫഹദ് ഫാസിലും ആൻഡ്രിയ അഭിനയിച്ചിട്ടുള്ള അന്നയും റസൂലും ഭയങ്കരമായിട്ടു തന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മനസ്സിനോട് ചേർത്തു പിടിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് അന്നയും റസൂലും പിന്നതുപോലെ നമ്മൾ തമിഴ് തമിഴിൽ നമ്മളൊരുപാട് സിനിമകൾ കാണുണ്ട് അതിൽ പ്രശസ്തമല്ലാത്ത നടന്മാരഭിനയിക്കുന്നൊരുപാട് സിനിമകൾ ഞാനിപ്പടുത്ത് ഒരു കണ്ട സിനിമയാണ് ലൗവറെന്നു പറഞ്ഞിട്ട് അതു ഭയങ്കര അടിപൊളി സിനിമയാണ് കാരണം ഒരു എന്താ രണ്ട് ലൗവർക്കിടയിലുണ്ടാകുന്നൊരുപാട് പ്രശ്നങ്ങളെന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ വ്യക്തമായിട്ടതിൽ കാണിച്ചിട്ടുണ്ട് നമ്മക്കൊരുപാട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് പിന്നെ ഇന്നലെ ഞാനൊരു കണ്ട സിനിമയാണ് നമ്മളുടെ എന്താ ലാപ്പട്ടാസ് ലേഡീസെന്നു പറയണൊരു സിനിമ നല്ലൊരു അടിപൊളി സിനിമയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഭയങ്കര ഇതിൻ്റെ അവസാനത്തെ ആ സീൻ കണ്ടിട്ട് നമ്മുടെ ഹൃദയം ഒന്നു തുടിച്ചു പോയിരുന്നത് നിമിഷമെങ്കിൽ പോലും ആ അപ്പോൾ